വാർത്ത വ്യവസായത്തില് സാങ്കേതികതയ്ക്ക് ഒരുപാട് ഒരുപാട് സ്വാധീനമുണ്ട് ഇന്ന് ലോകത്തിൻ്റെ ഏതു കോണിൽ നടക്കുന്ന വാർത്തകളെ നമ്മുടെ വിരൽ തുമ്പിൽ എത്തുന്നു അവയെ അവയുടെ ദൃശ്യം നമ്മുടെ മുന്നിൽ എത്തുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ വളർച്ച മൂലം പല ദുരന്തങ്ങളെയും മുൻകൂട്ടി അറിയുവാനും അത് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുവാനും അതുവഴി മുന്നോട്ടു പോകുവാനും അങ്ങനെ സാധിച്ചിട്ടുണ്ട് വാർത്താ യുടെ ഒരുപാട് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നത് വഴി ആൾക്കാരിലേക്ക് പല കാര്യങ്ങളും നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് എത്തിക്കുവാനും അവർക്ക് അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും ഇത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ചർച്ചകൾ പോലുള്ള സംഭവങ്ങളിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് പങ്കെടുക്കുവാനും അവരുടെ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനും ഇത് വളരെ സഹായിച്ചിട്ടുണ്ട്